ഞങ്ങളുടെ വീടിന് ചുറ്റും വൃത്തിയായി സൂക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വച്ചാൽ വേസ്റ്റുകൾ ഒക്കെ നല്ല രീതിയിൽ ഞങ്ങൾ നിക്ഷേപിക്കും നിക്ഷേപിക്കും എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഡസ്റ്റ്ബിന്നോ അങ്ങനെ വേസ്റ്റ് കോട്ടയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അതിനായി തന്നെ ഉപേക്ഷിച്ച് കച്ചറകളൊക്കെ

അപ്പോൾ അടിച്ച് വാരിക്കൊണ്ടും നിലം ആണെന്നുണ്ടെങ്കിൽ നല്ല അടിച്ചു വാരിക്കൊണ്ടും പിന്നെ പുറത്തുള്ള ബാഗുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടും പിന്നെ ബാൽക്കണികളും അതുപോലെ തന്നെ കോണികളും അവിടം ഒക്കെ ക്ലീനാക്കി കൊണ്ട് നമ്മൾ സൂക്ഷിക്കും അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉണ്ടാകുമല്ലോ

പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടെയ്നേഴ്സ് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് നമ്മൾ ഉപയോഗിക്കൽ ഒഴിവാക്കും

നമ്മൾ എയറിന് ക്വാളിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ മരങ്ങളും കാര്യങ്ങളൊക്കെ നടും വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടൊക്കെ പിന്നെ അതുപോലെ തന്നെ വെള്ളത്തെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഒഴിവാക്കും അതുപോലെ തന്നെ ഇതിനെ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കും അതുപോലെ തന്നെ വെള്ളം അങ്ങനെ നമ്മൾ കെട്ടി നിൽക്കാൻ അനുവദിക്കുകയില്ല അതിൽ നിന്ന് ഉള്ള കൊ കൊതുകിൻ്റെ ശല്യമൊക്കെ നമ്മൾ

അതിനെ നേരെ ഈ പ്ലാസ്റ്റിക്ക് ഒക്കെ കത്തിക്കുന്നത് നമ്മൾ ഒഴിവാക്കും അതിന് നല്ലൊരു അതിന്

ഈ സറൌണ്ടിങ്ങ് ഒക്കെ എന്താണ് നമ്മുടെ വീടിന്റെ സറൌണ്ടിങ്ങ് ഒക്കെ ക്ലീൻ ആയിട്ടും നല്ല വേസ്റ്റിൽ നിന്ന് മുക്തമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിറ്റൊക്കെ നമ്മൾ പറഞ്ഞ് കൊടുക്കും പിന്നെ ഈ ഇ തന്നെ വേസ്റ്റുകളൊക്കെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിത ടീം ഉണ്ടല്ലോ നാട്ടിൽ ഹരിത ടീമിന് നമ്മൾ കൊടുക്കും വേസ്റ്റുകളൊക്കെ പോലെ കൊടുക്കും